കൂടെ ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങള്

പറ്റുന്നതുമുണ്ട് പക്ഷെ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ കുരുമുളക് ജാതിക്കാ ഇതൊക്കെ കൃഷിയുടെ ഇടയ്ക്കു നട്ടുവച്ചോ ഒരു പറമ്പിൻ്റെ മൂലയ്ക്കു നട്ടുകൊണ്ടോ കുറച്ചു ലാഭം കൊയ്യാൻ സാധിക്കുന്ന കുറച്ചു കൃഷി ഇനങ്ങളാണ് അല്ലാതെയൊന്നും ഇപ്പോള് പഴയ പോലൊന്നും മണ്ണിലൊന്നും പിടിക്കാത്തതുകൊണ്ട് ഇതൊക്കെയേ നടക്കൂകയുള്ളൂ ആട് ആട് പശു കോഴി അല്ലെങ്കില് കുളം കെട്ടി താറാവിനെ വളർത്തുക അങ്ങനെയൊക്കെ അഴിച്ചു വിട്ട് ജീവിയെ വളർത്തുകയാണെങ്കില് പറമ്പുണ്ടെങ്കിൽ മാത്രം കൃഷിയോടൊപ്പം ഇതൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അത്രയും നല്ല രീതിയില് കഴിവുള്ളവരും കൂടെ ആയിരിക്കണം പിന്നെ ഓരോ കൃഷി കഴിയുമ്പോള് അടുത്ത പുതിയ വേറെ എന്തെങ്കിലും വിളവെടുപ്പു നടത്തുന്ന കൃഷിക്കാരുണ്ട് പച്ചക്കറി കൃഷിയോ അല്ലെങ്കില് ഇഞ്ചി കൃഷിയോ മഞ്ഞള് കൃഷി വാഴക്കൃഷി അതൊക്കെയാാണ് ഇപ്പോള് കൂടുതലായിട്ടും മുന്നോട്ടു പോകുന്നത് അല്ലാതെയുള്ള കൃഷികളൊന്നും അത്ര ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ വിലക്കുറവില് നാട്ടു ചന്തകളിലൊക്കെ കൃഷിയെടുക്കുന്നവർക്കു നഷ്ടത്തിനാണു സാധനം പോകുന്നത് പിന്നെ വരുന്ന പച്ചക്കറി കടയിലെല്ലാം തമിഴ്നാട്ടുകാരുടെ പച്ചക്കറിക്കറികളായതുകൊണ്ട് അവർക്ക് കടക്കാർക്ക് വിലക്കുറവില് കിട്ടും പക്ഷെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുമ്പോള് അതു തീ പിടിച്ച വിലയിലാണ് എത്തുന്നത് അതിൻ്റെ കൂട്ടത്തില് ഈ വിഷം കൂടെ തരുമ്പോള് തീർന്നു പിന്നെ നമ്മളിവിടെ മാങ്ങയും ചക്കയും ഒക്കെയുള്ളപ്പോള് നമുക്കതു കുറച്ചു ലാഭം പിടിക്കാൻ പറ്റും ചക്കക്കുരു ചക്ക യൂസെയ്തും പിന്നെ മാങ്ങാ കറിയൊക്കെ വച്ചും അങ്ങനെ ഇങ്ങനെ ചക്ക പുഴുങ്ങിയും ഒക്കെ പച്ചക്കറിയെ കുറേ ഒഴിവാക്കാൻ പറ്റും ചക്കയ്ക്ക് ഒരുപാടു ഗുണങ്ങളുണ്ടെന്ന് ഈ അടുത്തിടെയാണു സാധാരണക്കാരായ മനുഷ്യർക്കു തിരിച്ചറിവ് ഉണ്ടായത് ഇതുവരെ ചക്കയൊരു സ്ഥിരമായിക്കഴിയുമ്പോള് കൊള്ളത്തില്ലാത്തൊരു വസ്തുവായതുകൊണ്ട് ഇപ്പോള് സ്ഥിരം എല്ലാവരും ഉപയോഗിക്കാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതു വലിയൊരു സന്തോഷകരമായ കാര്യം പണ്ടൊക്കെ ഇത് ഒരു തള്ളിക്കളഞ്ഞിരുന്ന സാധനമായിരുന്നു ആ പിന്നല്ലാതുള്ള കൃഷികളെന്നു പറയുന്നത് വീട്ടിലെ ബിസിനസ്സാണ് വല്ല തുണി തയ്ക്കലോ അല്ലെങ്കില് എന്തെങ്കിലും മിഷൻ സ്റ്റാർട്ട് ചെയ്ത് മില്ല് എണ്ണ മില്ലോ തേങ്ങാ എണ്ണയാക്കുന്ന മില്ല് അങ്ങനെയൊക്കെ ഒരു പലചരക്കു കട അങ്ങനെയൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കില് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ചും വന്നു കൃഷി ചെയ്യുകയും അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പരിപാടികള് ചെയ്യുകയും ചെയ്യാൻ പറ്റും